ഹലോ ഇത് ന്യൂഫോം എന്നു പറഞ്ഞിട്ടുള്ള ഹോട്ടൽ അല്ലേ ഞാൻ കുറച്ച് മുൻപ് അവിടെ നിന്ന് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഫുഡ് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബിരിയാണി അൽഫാം അതുപോലെത്തന്നെ കുഴിമന്തി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കിട്ടിയ സമയത്ത് അൽഫാമിനു പകരം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് കിട്ടിയത് ഐറ്റം മാറിപ്പോയി അതുപോലെതന്നെ ക്വാണ്ടിറ്റി വളരേ കുറവായിരുന്നു ബിരിയാണിയിലൊക്കെ പിന്നെ എനിക്ക് കഴിച്ചു നോക്കിയപ്പം പഴകിയപോലെ തോന്നി ഫുഡ് അതുപോലെതന്നെ പാക്കിങ്ങ് അത്ര മോശമായതുകൊണ്ടുതന്നെ ഫുഡ് ഒരുപാട് പുറത്തു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നിങ്ങൾ എന്റെ പൈസ റിട്ടേൺ ചെയ്തിട്ട് തരണം